വാർത്ത താരങ്ങൾ അവരുടെ സ്വകാര്യത ശരിക്കും പറഞ്ഞാൽ ആരും സംസാരിക്കാത്തൊരു വിഷയമാണ് അവർ വളരേ അധികം കഷ്ടപ്പെടുന്നുണ്ട് സ്വകാര്യതയെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ നോർമലീ വേണ്ടൊരു കാര്യമാണ് പക്ഷെ ഈ വാർത്ത താരങ്ങൾ അല്ലെങ്കിൽ നമ്മളെ എന്റർറ്റെയ്ൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ സെലിബ്രിട്ടീസ് അവർക്കത് തീരേ കിട്ടുന്നതായി എനിക്ക് തോന്നുന്നില്ല അവർക്കും ഒരു സ്വകാര്യ ജീവിതമുണ്ട് അതിനെ ഇത് ബാധിക്കും എന്നുള്ളതൊന്നും പലരും ചർച്ച ചെയ്യാറില്ല ഇത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിന്റെ പാടറിയുളളൂ കാരണം സ്വകാര്യജീവിതം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് ഒരു സ്വകാര്യ ജീവിതം അല്ലെങ്കിൽ ഒരു പേർസണൽ ലൈഫ് എന്നു പറയുന്നത് അത് ഇപ്പോൾ ഈ സെലിബ്രിറ്റീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെയധികം ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുതന്നെ പറയേണ്ടി വരും അതും ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളപ്പം എങ്ങോട്ടുമിറങ്ങാൻ പറ്റാത്ത അവസ്ഥ എന്ന് തന്നെ പറയാം കാരണം അവരും മനുഷ്യരാണ് എന്നുള്ള ഒരു പരിഗണന പോലും ഇല്ലാതെ പലപ്പോഴും അവരെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട് നമ്മളെ എൻറ്റർട്ടെയ്ൻ ചെയ്യുന്നവരാണ് പക്ഷേ അവർക്കവരുടേതായിട്ടുള്ള ഒരു ജീവിതമുണ്ട് എന്ന് പലരും പലപ്പോഴും മനസ്സിലാക്കണില്ല പ്രത്യേകിച്ച് ഈ ഓൺലൈൻ മീഡിയകൾ പലപ്പോഴും മനസിലാക്കുന്നതായി തോന്നിയിട്ടില്ല വീടുകളിലും അതുപോലെ അവർ പോകുന്ന എല്ലാ സ്ഥലത്തും അവരെ പിന്തുടർന്ന് അവരുടെ ഫോട്ടോസും വീഡിയോസും അവരുടെ അനുവാദം കൂടാതെ എടുക്കുന്നത് അവരത് വേണ്ട എന്നു പറഞ്ഞാൽപ്പോലും നിർത്താതിരിക്കുന്നതും നമ്മൾ കാണാറുണ്ട് പിന്നെ അതിലും വലിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ വാർത്ത താരങ്ങൾ മാത്രമല്ല അവർക്കൊരു കുടുംബമുണ്ട് കുട്ടികളുണ്ട് ഈ കുടുമ്പത്തേയും കുട്ടികളേയുമെല്ലാം ഇതിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു അതുപോലെ കുടുംബം ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലവരുടെ പുറകേയും ആൾക്കാർ പോകുന്നു ഇതുപോലെ ശല്യപ്പെടുത്തുന്നു ഫോട്ടോസെടുക്കുന്നു പെർമിഷനില്ലാതെ ശരിക്കും ഒരാളുടേയും ഫോട്ടോസോ വിടിയോസോ എടുക്കാൻ പാടുള്ളതല്ല പക്ഷെ ഇവർ വാർത്താതാരങ്ങളാണ് എന്നുള്ളതുകൊണ്ട് മാത്രം അവരോട് ചോദിക്കാത അവരുടെ ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ വിഡിയോസ് എടുക്കുക അത് പുറത്തുവിടുക പല പല കാപ്ഷനിട്ട് പുറത്തുവിടുക അങ്ങനെ അവരെ ഡീഗ്രേഡ് ചെയ്യുക എന്നുള്ളതെല്ലാം നമ്മൾ പലപ്പോഴും കണ്ടുവരാറുള്ളതാണ് പിന്നെ പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയാണവർക്കെന്നേ ശരിക്കും പറയാൻ പറ്റുളളൂ കാരണം പുറത്തിറങ്ങിയാൽ അവിടെ എല്ലാം ക്യാമറ കണ്ണുകളാണ് അവരെ പിന്തുടരുന്നത് ദേഹോപദ്രവം വരെ നേരിടുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പല സെലിബ്രിട്ടീസും പറയുന്നത് അതായത് ആരാധന മൂത്ത് എന്നുവേണമെങ്കിൽപ്പറയാം കെട്ടിപ്പിടിക്കാൻ ചെല്ലുന്നു ഉമ്മ വെക്കാൻ ചെല്ലുന്നു അത് പലപ്പോഴും സാധാരണ ഒരു മനുഷ്യന് ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ല പക്ഷെ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ശരിയാണ് സ്നേഹം കൊണ്ടൊക്കെയാണ് പക്ഷേ എന്നിരുന്നാലും ദേഹത്ത് തൊടുന്നതിനു മുന്നേ ആ ആളോട് ചോദിക്കുക അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്നതിനു മുന്നേ അയാളോട് ചോദിക്കുക എന്നുള്ളൊരു സാമാന്യമര്യാദ പോലും പലരും പാലിക്കാറില്ല അതുപോലെ ഉപദ്രവിക്കുക മുറിക്കുക കൈ മുറിക്കുക കാൽ മുറിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർ മനുഷ്യരാണ് എന്ന് പലപ്പോഴും ആളുകൾ മറന്നുപോകും ദൈനം ദിന ജീവിതത്തിനെ വരെ ബാധിക്കുന്നതായി പല സെലിബ്രിട്ടീസും ഇത് പുറത്ത് പറഞ്ഞിട്ടുണ്ട് കാരണം സ്വകാര്യജീവിതം ദൈനംദിന ജീവിതത്തിൽ നമുക്കേറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് ഏറ്റവും ഏറ്റവുമത്യാവശ്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് വളരെ മാനസികമായും ശാരീരികമായും അവരെ ബാധിക്കപ്പെടുന്നുണ്ട് അതുപോലെ അവർ വളരെ അധികം കഷ്ടപ്പെടുന്നുമുണ്ട് പ്രത്യേകിച്ച് കുട്ടികൾ കുട്ടികൾ കുഞ്ഞു കുട്ടികളീ ഒരുപാട് ക്രൗഡൊക്കെ കാണുമ്പോൾ ഈ സെലിബ്രിറ്റി അച്ഛനും അമ്മയും സെലിബ്രിറ്റി ആണെന്നൊന്നും ഇവർക്കറിയണമെന്നില്ല പെട്ടെന്നൊരു കൂട്ടം ആൾക്കാരോടി വരുന്നു അച്ഛനേയും അമ്മയേയും പിടിക്കുന്നു ഒക്കെ കാണുമ്പോൾ കുട്ടികൾ പേടിച്ച് പോകും അതുപോലെ ഈ സെലിബ്രിട്ടീസാണെങ്കിലും പറയുന്നതു കേട്ടിട്ടുണ്ട് ഇതുപോലെ കുട്ടികൾ പേടിക്കും ഒന്ന് നിർത്തുമോ പറഞ്ഞാൽപ്പോലും നിർത്താത്ത സാഹചര്യങ്ങളും കണ്ടിട്ടുണ്ട് അതുപോലെയാണ് പ്രായമായ മാതാപിതാക്കൾ ഈ ഈ സെലിബ്രിറ്റികളുടെ തന്നെ പ്രായമായ മാതാപിതാക്കൾ അതുപോലെ പ്രായമായ സെലിബ്രിട്ടീസ് ഇവരെയൊന്നും തന്നെ വെറുതെ വിടുന്നതായി നമ്മൾ കാണപ്പെടാറില്ല എന്നിരുന്നാലും ഇതിന് ഒരു മാറ്റം വരികയെന്ന് വരുന്ന ഉടനെ ഒരു മാറ്റം വരുന്നതായി കാണുന്നില്ല ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽപ്പോലും പോകാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിലൊരു ഹോട്ടലിൽപ്പോയി ഒരു ചായ കുടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഇതൊന്നും ആക്സസ് ചെയ്യാൻ പറ്റാതിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കൺസേൺ തന്നെയാണ് ഒരുപാട് പാടുപെടുത്താതിരിക്കുക എന്നുള്ളത് നമ്മൾ മനസിലാക്കേണ്ട ഒരു കാര്യമാണ് കാരണം എല്ലായിടത്തും ഒരു മനുഷ്യനെ കുറെ ആളുകൾ പിന്തുടർന്നാൽ ആർക്കുമതിഷ്ടപ്പെടില്ല അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്